അങ്ങനെ പറയുമ്പോൾ പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകിയിട്ട് വരെ ജോലിക്ക് പോകുക എന്നിട്ട് നല്ല ശമ്പളം ഉണ്ടാക്കുക ഒരു ആഴ്ച ജോലിക്ക് പോകുക നല്ല ശമ്പളം ഉണ്ടാക്കുക എന്നിട്ട് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സൺഡേ അങ്ങനെ ലീവ് കിട്ടില്ല ഏതെങ്കിലും ഒരു ദിവസം അന്ന് ഇപ്പം എന്ന് പറയുമ്പം ഒന്നല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ എവിടെയെങ്കിലും പുറത്തു പോകുക എന്നിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പണിക്കു പോയിട്ട് പൈസ ഉണ്ടാക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ ഇത് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഒക്കെ ഉണ്ടാലില്ലേ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുക ഇതൊക്കെയാണ് ഇപ്പം ഇതെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ ഞായറാഴ്ചകളിലൊക്കെ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തു പോകില്ലേ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഫ്രീ കിട്ടുന്ന അന്ന് നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടി പുറത്തുപോയി അടിച്ചുപൊളിച്ച് ചിലപ്പോൾ ചിലരുണ്ട് കുടിക്കുന്നവരെ നൈറ്റ് അടിച്ചു കിങ്ങിടിയായിട്ട് കുറച്ചു കുടിച്ച് വീട്ടിൽ പോകുക അങ്ങനെയെങ്കിലും ഓരോ പാർട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാകില്ലേ ആ ടൈമിന് നമ്മൾ ഫാമിലി ട്രിപ്പ് ആയിട്ട് നമ്മൾ ഇപ്പം ഞായറാഴ്ച രാവിലെ എവിടെയെങ്കിലും പോകുന്നു അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് സ്റ്റേ അല്ല അവിടെ പോകുന്നു ഫുഡ് ഒക്കെ കഴിക്കുന്നു സ്ഥലമൊക്കെ കാണുന്നു ഇങ്ങനെ കറങ്ങി ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ കറങ്ങി കുറച്ചു വൈബ് അടിച്ച് കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ടാക്കുക ഇതുതന്നെ പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഫ്രീയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കുക